ഹൈക്ക് ചെയ്യാൻ എനിക്കേറ്റവും ഇഷ്ടമുള്ള ഭൂപ്രദേശം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ മലകളൊക്കെയാണ് മലകൾ വനങ്ങളുടെ ഇടയിലൂടെ പോകുന്നത് മലകളിൽ ഇങ്ങനെ കയറിക്കയറിപ്പോയി നമ്മളതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പം നമുക്കൊരു വ്യൂ ഉണ്ടാവും അത് നമുക്ക് വല്ലാത്തൊരു വൈബാണ് അതായത് നമുക്കത് കാണുമ്പം തന്നെ ഭയങ്കര ഒരു രസമാണ് മലേൻ്റെ മുകളിൽ നമ്മളത്രയും കഷ്ടപ്പെട്ട് കയറി അതിൻ്റെ മുളിലിങ്ങനെ നേരെ നിന്ന് നോക്കുമ്പം അത് വല്ലാത്തൊരു വൈബാണ് മലേൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പം പിന്നെ വനങ്ങളുടെ ഇടയിലൂടെ പോകുന്നതും പിന്നെ മഞ്ഞു മൂടിയ പർവ്വതങ്ങൾ അതായത് മേലെക്കയറിപ്പോകുമ്പം അധവാ മഞ്ഞു പൂ മൂടിയപോലെ ഇങ്ങനെ ഫുള്ള് പുകയായിട്ടൊക്കെ ഉണ്ടാവും നമുക്കിവിടെ വയനാട്ടിലൊരു കുറുമ്പലക്കോട്ടയെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മൾ രാവിലെ കുറേ കുന്ന് കയറിപ്പോണം കുന്ന് കയറിപ്പോയി അതിരാവിലെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലുള്ളൊരു വ്യൂ വ്യൂ ഉണ്ട് അതൊരു വല്ലാത്തൊരു വൈബാണ് പിന്നെ പർവ്വതങ്ങളിലുള്ള സൂര്യാസ്തമയങ്ങളിൽ അങ്ങനെ സൂര്യാസ്തമയങ്ങളൊക്കെ കാണുമ്പം നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് എനിക്ക് ഹൈക്ക് ഏറ്റവും ഇഷ്ടം മലകളുടെ മുകളിലൂടെ പോയി കാണുന്നതാണ്